ഓൺലൈൻ സ്കൂൾ വിദ്യാഭ്യാസവും പരിശീലനവും കുട്ടികളുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് ഇപ്പോൾ റീസെന്റ് ആയിട്ട് കോവിഡ് പാൻഡമിക്കൊക്കെ വന്ന സമയത്താണെങ്കിലും അത്രയും നാളും ഓഫ് ലൈൻ ക്ലാസ്സുകളിൽ പോയി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളെല്ലാം ഓൺലൈനിലേക്ക് കൺവെർട്ട് ആകുകയും അത് ത്രൂ അവരുടെ അക്കാഡമിക് സിസ്റ്റം എല്ലാം ടോട്ടലി എന്റയർലി ഡിഫറെൻറ് ആക്കിക്കൊണ്ട് അവരൊരു പുതിയ സിസ്റ്റം ഓഫ് സ്റ്റഡിയിലേക്ക് അല്ലെങ്കിൽ ഒരു അക്കാഡമിക് വേയിലേക്ക് പുതിയൊരു അക്കാഡമിക് വേയിലേക്ക് കയറുക ഉണ്ടായി ആ സമയത്തൊക്കെ ഫസ്റ്റ് ടൈം അതായത് സ്റ്റാർട്ടിങ്ങിൽ ഒക്കെ ഒരുപാട് കുട്ടികൾക്ക് ആ ഒരു കാര്യം ആലോചിച്ചിട്ട് അവർ ബോതേഡ് ആയിരുന്നു ആ എങ്ങനെയായിരിക്കും തുടർന്നുള്ള അവരുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡീസ് കൊണ്ട് അവർക്ക് നേട്ടങ്ങളായിരിക്കുമോ കിട്ടുക അതെയോ കോട്ടങ്ങളായിരിക്കുമോ മെയ്നായിട്ടും ആൾക്കാർ ശ്രദ്ധിച്ചത് അതൊക്കെയാണ് അതിൻ്റെ ഡീമെറിറ്റ്സ് ആണ് മെറിറ്റ്സിനേക്കാളും കൂടുതലും ഡീമെറിറ്റസ് ആയിരുന്നു ആ സമയത്ത് പക്ഷെ നല്ലൊരു സിസ്റ്റമായിട്ട് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെൻ്റിന് അത് നമ്മുടെ നാട്ടിൽ ഇമ്പ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞു ഇപ്പോൾ പുറത്തുള്ള അതായത് ഫോറിൻ കൺട്രീസൊക്കെ ചെയ്യുന്നതു പോലെ ഓൺലൈൻ സിസ്റ്റം വഴി നമ്മൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്തു അത് ത്രൂ നമുക്ക് നല്ല രീതിയിലുള്ള എന്താ പറയുക നല്ല രീതിയിലുള്ളൊരു സിസ്റ്റം ഓഫ് ലേർണിങ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ളൊരു വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു അതുവഴി നമുക്ക് ഒരുപാട് നേട്ടങ്ങളാണ് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും ഈ കോവിഡ് പാൻഡമിക് ടൈമിൽ പുറത്തേക്ക് പോലും പോകാൻ കഴിയാത്ത സമയത്ത് നമ്മൾ നമ്മുടെ ഓഫീസ് ജോലികളാണെങ്കിലും പഠിത്തമാണെങ്കിലും എല്ലാം നമ്മൾ ഓൺലൈനിലേക്കാക്കി ഒരു മീറ്റിങ്ങ് കൂടണമെങ്കിൽ വരെ ഇന്ന് സൂം അതുപോലെ മൈക്രോസോഫ്റ്റ് ആപ്ലികേഷൻസ് ഗൂഗിൾ മീറ്റ് അങ്ങന പല ആപ്ലികേഷൻസും നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് അത് ത്രൂ നമുക്ക് ഓരോ മീറ്റിങ്ങിനോ അല്ലെങ്കിൽ എന്തൊരു ക്ലാസ്സിനോ കയറി നമുക്ക് അറ്റന്റ് ചെയ്യാനും അതിപ്പം അതെവിടെയാണെങ്കിലും ഏത് സമയത്താണെങ്കിലും നമ്മുടെ എന്താ പറയുക അവൈലബിലിറ്റിക്കനുസരിച്ച് നമുക്ക് കയറി ആ പ്രോഗ്രാം അറ്റന്റ് ചെയ്യാനും അതിൽ പങ്കെടുത്ത് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പഠിക്കാനും ഉള്ളൊരവസരം നമുക്ക് കിട്ടി ടെക്നോളജീൻ്റെ ആ ഒരു വരവ് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് യൂസ് ഫുൾ ആയി മാറി നമുക്കൊരുപാട് യൂസ് യൂസ് യൂസ് ഫുള്ളായിട്ടുള്ള മൊമെന്റ്സ് കിട്ടിയെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്